ഒരു നമ്പറെന്നുവച്ചാല് ഒരു ലക്ഷത്തി അമ്പത്തേഴായിരത്തി അറുപത്തി എട്ട് പിന്നെ ഒരു നമ്പരെന്നുവച്ചാല് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പിന്നെ ഏതാന്ന് വെച്ചാ പന്ത്രണ്ടായിരത്തി ഇരുനൂറ് പിന്നെ അയ്യായിരത്തി എഴുന്നൂറ്റി അന്പത്തിയെട്ട് പിന്നെ എട്ടു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി നാല്പത്തിയൊന്ന്